ഹലോ മാം ഞങ്ങള്ക്ക് ഇത് കോട്ടയം പോലീസ് സ്റ്റേഷനല്ലേ ഞങ്ങള് കുറച്ചു ദിവസത്തേക്ക് ഫാമിലി ആയിട്ടൊരു ടൂര് പോവാരുന്നെ രണ്ട് മാസത്തേക്ക് പോന്നെ രണ്ടു മാസത്തെ ഒരു വിസിറ്റിംഗിന് വെളിയിലേക്ക് പോവുകയാണ് അപ്പോള് നമ്മളിങ്ങനെ വെളിയിലോട്ടൊക്കെ പോകുമ്പോള് ഇൻഫർമേഷൻ ചെയ്യണമെന്നിങ്ങനെ പറഞ്ഞു കേള്ക്കാറുണ്ട് അതുകൊണ്ട് വിളിച്ചതാണ് ആ ഞാതിപ്പിത് പറയാന്വേണ്ടിയിട്ടാണു വിളിച്ചേ ഞങ്ങളിങ്ങനെ ഇത്രയും ഇത്രയും നാളത്തേക്കൊക്കെ പോകുമ്പോള് ഒന്നറിയിക്കണമല്ലോ അല്ലേ പിന്നീട് എന്തേലും കംപ്ലൈൻറ്റ് വന്നുകഴിഞ്ഞാല് അറിയിക്കാഞ്ഞാല് എന്താണെന്നു ചോദിക്കാതെ അപ്പോഴതിനു മുമ്പ് ഞങ്ങളൊന്നു പറഞ്ഞെന്നെ ഉള്ളു അപ്പൊന്ന് ഞങ്ങളിത് ഞങ്ങളിത് മെഡിക്കൽ കോളേജടുത്ത് അമ്മഞ്ചേരീന്ന് പറയും ആ അമ്മഞ്ചേരി അവിടെ അമ്മലേ കോളേജിനടുത്താണ് കോളേജിനടുത്താ കോളേ ആ കോളേജിൻ്റെ അവിടുന്ന് പിന്നെ അതിരം യൂണിവേഴ്സിറ്റിക്ക് പോകുന്ന റൂട്ടാണെ റൈറ്റ് സൈഡുതന്നെയാണ് അവിടുന്ന് ആ ലെഫ്റ്റ് സൈഡില് നാലാമത്തെ വീട് ആ അതെ അതെ ബിജുവിൻ്റെ വീടിനടുത്താണ്

ഞങ്ങള് ഈ വർഷാവധിക്ക് യൂക്കേക്ക് പോവുകയാണ്

ഫാമിലി സഹിതം ഫാമിലി വിസാക്ക് പോവുന്നതാണ് ഓക്കെ ആ അതെ താക്കോൽ നമ്മള് ആ താക്ക് താക്കോൽ അടുത്തൊരു വീട്ടിലുണ്ട് അത്യാവശ്യം എന്തേലും വന്നെങ്കില് പിന്നെ ഞങ്ങളുടെ കയ്യിലൊരു താക്കോലുണ്ട് ഓക്കെ യൂണിവേഴ്സിറ്റി ഭാഗമൊക്കെ എന്നും ചെക്കിങ് ഉണ്ടാവുമോ ഓക്കെ ഓക്കെ ഓക്കെ ക്യാഷ് വല്ലോം ക്യാഷ് വല്ലോം നമ്മള് നേരത്തെ ഏൽപ്പിക്കണോ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും വേണോ

നമ്മളെന്തേലും കംപ്ലൈൻറ്റോ അങ്ങനെ എന്തെങ്കിലും എഴുതിത്തരണോ അപേക്ഷയായിട്ട് ആ ആ അപേക്ഷയായിട്ട് എന്തെങ്കിലും വയ്ക്കണോന്ന് സ്റ്റേഷനില് വയ്ക്കേണ്ടതുണ്ടോന്ന് ആ ഓക്കെ ഞങ്ങള് മെഡിക്കി മെഡിക്കൽ കോളേജിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണ്ടല്ലോ സാറിനെ വിളിച്ചു പറഞ്ഞകാരണം ആ ഇപ്പോള് എന്തെങ്കിലും മോഷണമോ അങ്ങനെ വല്ലോം നടന്ന എന്തേയ്യും ഇപ്പോള് കുറുവയുടെ ഇതൊക്കെ ഉള്ളോണ്ട് നമ്മുടെ അയൽവക്കത്തൊക്കെ ഇങ്ങനെ ചെറിയ ശല്യങ്ങളുണ്ടായിരുന്നു അപ്പോള് അതാ ഇപ്പോള് ഞാൻ കൂടുതലും സ്റ്റേഷനിൽ അറിയിച്ചത് ഓക്കെ ഓക്കെ സാറെ താങ്ക്യൂ